തൊണ്ടയടപ്പെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളെ വളരെയധികം തളർത്തുന്നൊരു സംഭവമാണ് എന്നു വെച്ചാൽ നമുക്ക് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് സംസാരത്തിൽ കുറേ നേരം സംസാരിക്കുമ്പം നമ്മുടെ തൊണ്ടയടഞ്ഞ് പോകുന്നു നമുക്ക് എന്നാ പറയുന്നത് ഉമിനീരിറക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മളെ പലവിധത്തിൽ ബാധിക്കുന്നതാണ് ഒരു പിന്നെ നമ്മുടെ തൊണ്ടയിൽ തൈറോയിഡിന്റെ ഒക്കെ ഓപ്പറേഷൻ കഴിയുന്ന വ്യക്തികൾക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വരുത്തുന്നത് നമുക്ക് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ നമുക്ക് തൊണ്ടയിൽ നിന്ന് വിക്കും വിക്കുന്ന ഒരിത് രീതിയുണ്ട് അതൊക്കെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എഫെക്റ്റ് ചെയ്യും സംസാരം ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം പതറിപ്പോവുന്നു നമുക്ക് നല്ല സ്പുടതയോടെ സംസാരിക്കാൻ പറ്റുന്നില്ല അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അതു നമ്മൾ അനുഭവിക്കുന്നവർക്കേ അതിന്റെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തുള്ളു മറ്റുള്ളവർക്ക് അതിന്റെ അത്രത്തോളം ആഴം മനസ്സിലാക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ സ്വന്തം അനുഭവത്തിൽക്കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ആ ഒരു ഫംഗ്ഷനെല്ലാ രീതിയിലും നല്ല രീതിയിൽപ്പോയില്ലെങ്കിൽ നമുക്ക് വളരെ മാനസികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളേ ആ ശ്വാസമായ തടസ്സങ്ങൾ ഇതൊക്കെയും അതിൽനിന്ന് ഉണ്ടാവുന്നതാണ് ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതകളാണ് ആൾക്കാറെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടന്ന് ശബ്ദം പതറിപ്പോവുന്നു പിന്നെ അതേപോലെ വെള്ളവും ഭക്ഷണവുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ അതൊന്നും മാനേജ് ചെയ്തു പോവാനായിട്ട് സാധിക്കാതെ വരുന്നതാണ് അതിനെ നമ്മൾ പ്രതിവിധിയായിട്ട് സാധാരണ നമ്മൾ പിന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് ചെറുചൂടുമായിട്ട് നമ്മൾ തൊണ്ടയിലത് ഗാഗിള് ചെയ്യുമ്പം അത് നമുക്ക് കുറച്ചാശ്വാസമൊക്കെ ലഭിക്കും തൽക്കാലത്തേക്ക് വീണ്ടും നമുക്ക് പിന്നീട് വീണ്ടും ആ ബുദ്ധിമുട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട് സ്ഥിരമായിട്ട് നമ്മൾക്ക് തൊണ്ടയിൽ പ്രശ്നമുള്ളവർക്ക് അത് മാറിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതേപോലെ നമ്മുടെ ഈ ടോൺസിൽസ്സ് അങ്ങനെയുള്ള വിഷയമുള്ളവർക്ക് കൂടെക്കൂടെ തനിയേ അതൊക്കെ പെട്ടന്ന് പിടിപ്പെടുന്നതും പെട്ടെന്ന് നമുക്കെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു പോകുന്നതും അത് നമ്മുടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ തൊണ്ടയിലുണ്ടാക്കുന്നതാണ് അതിന് എത്രത്തോളം നമ്മൾ ആ ബുദ്ധിമുട്ടനുഭവിക്കുന്നുവെന്ന് നമുക്കത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണത് തൊണ്ടയിലെ ബുദ്ധിമുട്ടും പ്രയാസവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്ന സംഭവം ഈ ഉമിനീരിറക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് ശബ്ദം പുറത്തോട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഓരോ അസ്വസ്ഥത മറ്റ് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകും നമ്മുടെ തൊണ്ടയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്നുള്ള ആ ഒരു ഫീലിങ്ങ് അടുത്ത് നിൽക്കുന്നവർക്കും അനുഭവപ്പെടുന്നതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മളെ സംസാരത്തിലാണ് നമുക്ക് ആ ഒരു ഫീലിങ്ങുണ്ടാവുന്നത് ഒരുപാട് സംസാരിക്കുമ്പോഴും നമ്മുടെ തൊണ്ടയിലുള്ള ആ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞ് അറിയിക്കാനായിട്ട് പറ്റത്തില്ല എന്തേയിപ്പം തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ സർജറിയൊക്കെ നടത്തിയതിന് ശേഷമുണ്ടാകുന്ന നമുക്കത് അത്രത്തോളം സക്സസ്സാകാത്ത ഒരുപാട് കേസുകളുണ്ട് അതൊക്കെ നമ്മളെ ഒരുപാട് നമ്മുടെ ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ട ഫീലിങ്ങുകളായിട്ട് മാറാനുമുണ്ട് അത് നമുക്ക് പിന്നീടത് മുന്നോട്ട് നേരെയാക്കിക്കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെ അത്യാവശ്യം നമ്മൾ ആ പെർമനന്റായിട്ട് കിട്ടിയിരിക്കുന്ന കുഴപ്പമൊന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റാതെ വരുന്ന സാഹചര്യം തന്നെയാണ്